മെയിന് ആയിട്ടെന്ന് പറയുമ്പോള് പണ്ട് എന്നുവെച്ചാല് നമ്മള് നമ്മുടെ ഇതെന്ന് അതായത് ഈ ന്യൂസ് ചാനൽസ് പത്രങ്ങള് അങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെയാണ് മെയിനായിട്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മള് അറിയുന്നത് അപ്പോള് ഈയൊരു കാലഘട്ടത്തിൽ എന്നുവെച്ചാല് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുവെച്ചിട്ടുണ്ടെങ്കില് നമ്മള് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാല് സമൂഹമാധ്യമം ഇപ്പോള് ഓൺലൈൻ വഴി ഇപ്പം എക്സാമ്പിള് പറയുകയാണെങ്കില് ഇപ്പോള് ഏഷ്യാനെറ്റ് ന്യൂസ് പോലത്തെ ന്യൂസ് ചാനൽസിൻ്റെ ഒഫിഷ്യലായിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട് നമുക്ക് ഒഫിഷ്യലായിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട് അതല്ലാതെ തന്നെ ഇപ്പം സൈറ്റുകള് ഇപ്പം ഡെയിലി ഹണ്ട് അങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങളുണ്ട് ചിലപ്പോള് വാട്ട്സപ്പ് ഗ്രൂപ്പുകളായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതു കൊണ്ടുതന്നെ നമുക്ക് മെയിനായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും കാരണം പല വീടുകളിൽ പോലും ഇപ്പം പത്രങ്ങള് കംപാരിറ്റീവിലി വരുത്തുന്നതു വരെ ഭയങ്കരമായിട്ട് കുറവാണ് കാരണമെന്താണെന്നുവെച്ചാൽ സാമൂഹിക മാധ്യമങ്ങളുടെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ടുതന്നെ നമുക്ക് അതിൻ്റെ ഉള്ളതു കൊണ്ടുതന്നെ ഈ പഴയ രീതിയിലുള്ള ന്യൂസ് ചാനല് കാണുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവേ കുറഞ്ഞു ഇപ്പോള് നമ്മുടെ ജനറേഷനിലുള്ള ഇപ്പം ഈ ജനറേഷനിലുള്ള കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കില് അവര് ഇതില് ഭയങ്കരം രീതിയിലേക്ക് കുറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് അപ്പം ഇത് മാധ്യമങ്ങളുടെ കടന്നുവരവ് നമ്മുടെ ഈ വാർത്ത ഉപയോഗം ഉൾപ്പെടുത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ അറിവുകള് പെട്ടെന്ന് വർദ്ധിക്കും ഇപ്പം എക്സാമ്പിള് നമ്മളിപ്പോൾ ട്രാവല് ചെയ്യുകയാണെങ്കില്പ്പോലും ഇപ്പം പെട്ടെന്ന് ഒരു ഇൻസിഡൻറ് ഉണ്ടായി ഇപ്പോള് നമുക്ക് അതിനെക്കുറിച്ചറിയണമെങ്കില് ഇപ്പോള് ഇന്നത്തെ ഡെയിലി വാർത്തകള് എന്താണെന്നറിയണമെങ്കിൽ നമുക്കൊരിക്കലും ആ പോകുന്ന വഴിക്ക് നമുക്ക് പത്രം കൊണ്ടുവരാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് സഹായിക്കാൻ പറ്റില്ല ആ സമയം നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഫോണുകളാണ് ഇപ്പോള് മോസ്റ്റ് ഓഫ് ദി ആൾക്കാര് ഉപയോഗിക്കുന്നത് ആ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഫോണുകളുള്ളത് കൊണ്ടുതന്നെ നമുക്ക് മെയിനായിട്ട് ഇപ്പം ജസ്റ്റ് ഒരു ഓൺലൈനില് കയറി സൈറ്റുകളില് കയറി ഇപ്പോള് എക്സാമ്പിൾ ഇപ്പോള് ഡെയിലി ഹണ്ട് എന്നുപറഞ്ഞ ആപ്പുണ്ട് അപ്പോള് ആ ആപ്പിനകത്ത് കയറിയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടും ഇപ്പം ഇപ്പം മലയാള മനോരമ ഏഷ്യാനെറ്റ് ന്യൂസ് അങ്ങനെയുള്ള ഒഫിഷ്യലായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട് അപ്പോള് ഒഫിഷ്യലായിട്ടുള്ള ആ പ്ലാറ്റ്ഫോംസിനകത്ത് നമുക്ക് കയറിയിട്ടാണെങ്കിൽ നമുക്ക് നോക്കുവാനായിട്ട് പറ്റും പ്ലാറ്റ്ഫോം കയറിയിട്ട് നോക്കുവാനായിട്ട് പറ്റും ഇപ്പം എന്താണ് വാർത്ത എപ്പോഴാണ് വാർത്തയിട്ടത് ബ്രേക്കിംഗ് ന്യൂസ് എന്താണ് ഇന്നത്തെ വാർത്തകള് ഇപ്പോഴെന്താണ് ഇപ്പം പലരും എഴുതിയിട്ടുള്ള ഇതായിട്ട് കായികപരമായിട്ടുള്ള വാർത്തകള് പല രീതിയിലുള്ള വാർത്തകളെക്കുറിച്ച് നമുക്ക് മെയിനായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പം ഈ സാമൂഹിക മാധ്യമങ്ങളുടെ കടന്നുവരവ് നമ്മുടെ ഈ വാർത്ത ഉപയോഗത്തെ നല്ല രീതിയില് തന്നെ മാറ്റിയിട്ടുണ്ട് കാരണം ഇപ്പോള് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളെന്നുവെച്ചാല് വായനാശീലം പൊതുവേ കുറവായിട്ടുള്ള ആൾക്കാരാണ് അപ്പം വായിക്കുന്നതിൽ അത്രയേറെ താല്പര്യം പുലർത്താത്തൊരു ഇതാണ് അപ്പോള് നമുക്ക് അറിവുകള് ലഭിക്കുകയും വേണം എന്നാൽ പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോള് കൊച്ചു കുട്ടികള് വായന വളരെ കുറവാണ് പണ്ടത്തെ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവരുടെ ഇപ്പോള് പത്രം പത്രങ്ങളിലൂടെ വായിക്കുകയും ഇപ്പം ന്യൂസ് ചാനൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞാണ് അവര് ഈ വാർത്തകളെക്കുറിച്ച് മെയിനായിട്ട് അറിയുന്നത് പണ്ടെന്നുവെച്ചാല് പത്രമായിരുന്നു പ്രധാനമായിട്ടുള്ളത് വാർത്തകൾ അറിയാനുള്ള പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് അപ്പോള് വായനാശീലം ഇപ്പം ഇപ്പോഴത്തെ കുട്ടികളില് പൊതുവേ കുറവാണ് അപ്പം ഈയൊരു ഇത് വെച്ചുനോക്കുകയാണെങ്കില് നമ്മുടെ ഈ മാധ്യമങ്ങള് മാധ്യമങ്ങളുടെ ഉപയോഗമെന്നുവെച്ചാല് മെയിനായിട്ട് പല രീതിയിലുണ്ട് ഇപ്പം മാധ്യമങ്ങളുടെ ഇതുള്ളതുകൊണ്ട് തന്നെ നമുക്കധികം ചെലവഴിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്നുള്ള കാര്യങ്ങള് പെട്ടെന്നുള്ള അവൈലബിലിറ്റിയെ നമുക്ക് നല്ല രീതിയില് മനസ്സിലാക്കാനും അറിയാനായിട്ടും സാധിക്കും അപ്പം ഈ മാധ്യമങ്ങളുടെ ഒരു കടന്നുവരവ് നമ്മുടെ എൻ്റെ പേർസണൽ എക്സ്പീരിയൻസ് വെച്ച്